ആ പൊതുവേ നമ്മൾ വാർത്ത അല്ലെങ്കിൽ ടി വി ചാനൽ കാണുകയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മലയാള ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ മലയാളത്തില് കുറേ ചാനലുണ്ട് ഏഷ്യാനെറ്റ് സൂര്യ കൈരളി മലയാള മനോരമ ഏഷ്യാനെറ്റ് പ്ലസ് സൂര്യ കോമഡി അങ്ങനെ കുറേ ചാനൽ ഉണ്ട് അതിൽ തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാ സിനിമ ആയാലും ഇപ്പോൾ കളിയായാലും ഇപ്പോൾ കളി ഇപ്പോൾ ഇല്ല അതിൽ തന്നെയാ വന്നു കൊണ്ടിരിക്കുന്നതുകൊണ്ട് കളി അതിൽ തന്നെ കാണുക പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്പോർട്സ് സ്പോർട്സ് ചാനൽ സ്പോർട്സ് ചാനൽ നമുക്ക് ഇപ്പോൾ മലയാളത്തിൽ ഇല്ലാത്തതു കൊണ്ട് അത് ഇംഗ്ലീഷിൽ അത് ഇംഗ്ലീഷിലാ കാണുക സ്പോർട്സ് അല്ലെങ്കിൽ ആ അങ്ങനത്തെ സ്പോർട്സിൻ്റെ ചാനൽ വേറെ കാണും അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മള് മലയാളം ചാനൽ തന്നെയാണ് കാണുന്നത് ഇപ്പോൾ നമ്മള് പ്രാദേശികപരമായിട്ട് നമ്മള് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ പാലക്കാട് കേബിൾ വിഷൻ ഉണ്ട് ഷൊർണൂർ കേബിൾ വിഷൻ ഉണ്ട് കെ സി വി പിന്നെ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഒരു ചാനൽ ലോക്കൽ ചാനൽ ഉണ്ട് അങ്ങനെ അ പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് പറയുമ്പോൾ വേറെ ആ രണ്ട് അതുപോലെ പ്രാദേശികമായിട്ട് ലോക്കൽ ചാനൽ ഷൊർണൂരിൻ്റെ ഉണ്ട് അങ്ങനത്തെ ചാനലുകൾ കുറേയുണ്ട് അതിലും നമുക്ക് അത്യാവശ്യം പ്രാദേശികമായിട്ട് ഇവിടെ നടക്കണ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ വാർത്തകളൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും പിന്നെ മലയാളഭാഷ കൂടുതൽ നമ്മള് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ നമുക്ക് സിനിമയുടെ കാര്യങ്ങൾ ഇപ്പോൾ വേറെ ഭാഷേനെക്കാട്ടില് നമുക്ക് മലയാള ഭാഷയിൽ തന്നെ കാണുമ്പോൾ കൂടുതലായിട്ട് അതിലിപ്പോൾ കോമഡി ആണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് അത് തന്നെ അധികവും കാണല് വീട്ടിലൊക്കെ